ഭവിഷത്തുക്കൾ വരത്തക്കവണ്ണം ഞങ്ങളുടെ പ്രദേശവും അപ്പുറത്തെ പ്രദേശവും തമ്മിൽ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ ആരോഗ്യപരമായ ഒരു സംഘർഷം ഞങ്ങൾക്കിടയിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ ചരിത്ര പ്രസിദ്ധമായ വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളം കളി നടക്കുമ്പോൾ ഞങ്ങൾ രണ്ടു കരക്കാർ അതായത് നടുഭാഗവും ചെമ്പക്കുളവും തമ്മിൽ

ഉറപ്പായും ഒരാരോഗ്യപരമായ സംഘർഷം ഞങ്ങളുടെ രണ്ടു കരക്കാരുടെ ഇടയിലും വരാറുണ്ട് അതൊരാരോഗ്യപരമായി തന്നെയാണ് നിൽക്കുന്നത് ഇതുവരെയും അതിനൊരു ഭവിഷത്തുക്കളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളതൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലാണ് എടുക്കാറുള്ളത് അന്ന് ഞങ്ങൾ പഠിക്കുന്നത് അപ്പുറത്തെ കരയിലെ ഒരു സ്കൂളിലായതുകൊണ്ടു തന്നെ അവിടെ ഞങ്ങളെ കരയിൽ ഉള്ളതും അപ്പുറത്തെ കരയിൽ ഉള്ളതും പിള്ളേരുണ്ട് അപ്പം ഞങ്ങളുടെ മത്സരം കഴിയുമ്പം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാറുണ്ട് അതൊരു ആരോഗ്യപരമായ കാര്യമാണ് ഞങ്ങൾ അതൊരു കോമഡി രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളു